ധ്രുവീയ മേഖലയിലും ഉപ ധ്രുവീയ മേഖലയിലും മെയിൻ ആയിട്ട് നാല് ഋതുക്കളാണ് ഉള്ളത് വസന്തകാലം മഞ്ഞുകാ മഞ്ഞുകാലം വർഷകാലം ഗ്രീഷ്മകാലം അങ്ങനെ നാല് വസന്ത ഋതുക്കളാണ് ഉള്ളത് എനിക്ക് അതില് ഏറ്റവും ഇഷ്ടം വസന്ത കാലമാണ് ഈ വസന്തകാലത്താണ് കൂടുതലും മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക പിന്നേന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നല്ലൊരു കാലാവസ്ഥ ആയിരിക്കും നമുക്ക് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ആ ക്ലൈമറ്റ് ചെയ്ഞ്ചിങ് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൂക്കള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം വളരുന്ന ഒരു സമയമായിരിക്കും വസന്തകാലം പൂക്കളൊക്കെ വളർന്ന് നിൽക്കുന്നത് തന്നെ കാണാൻ നമുക്ക് വലിയ വലിയ രസമായിരിക്കും അപ്പം പൂവിൻറ്റേയൊക്കെ ഒരു ടൈം ആണ് വസന്തകാലം അപ്പം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം ഓണത്തിൻറ്റെ ഒരു ആ ഒരു ടൈം ഒക്കെ ആണ് വസന്തകാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഒരു വലിയ ഒരു രസമാണ് നല്ല അതായത് അതിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് തന്നെ നമുക്കൊരു ക്യൂട്ട്നസ്സായിട്ട് നമുക്ക് തോന്നാറുണ്ട്